എൻ്റെ പ്രിയ്യപ്പെട്ട ബൈക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ബൈക്കൊന്നുമില്ല പ്രിയ്യപ്പെട്ടതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം യൂസ് ചെയ്തതിൽ എനിക്ക് ബജാജിൻ്റെ അവഞ്ചറ് അത് ഓക്കേ ആണ് പിന്നെ ഇങ്ങനെയുള്ള നോർമ്മൽ ബൈക്ക് മാത്രമാണ് പിന്നെ എപ്പോഴെങ്കിലും വാങ്ങാണം എന്നുള്ള ഒരു ബൈക്ക് ഹാർലി ഡേവിഡ്സൺ ആണ് കാരണം അതിൻ്റെ ക്രൂയ്സ് വണ്ടിയെല്ലാം അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെടും പെടുന്നയാണ് അങ്ങനെയുള്ള കുറച്ച് ഇതേ ഉള്ളൂ പ്രിയപ്പെട്ടതെന്ന് പറയാൻ ഈ നോർമൽ ബൈക്സ് തന്നെയാണ് ബൈക്ക് ഇപ്പം എന്തിനുള്ളത് നമുക്ക് ഒരു ആവശ്യത്തിന് പോകാനും വരാനും മാത്രാണ് അല്ലാതെ അതിൻ്റെ മോൾല് നമ്മൾ അതിന് പ്രിയപ്പെട്ടത് പിന്നെ ഫേവറേറ്റ് അങ്ങനെ ഒന്നുമില്ല പിന്നെ ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നുള്ളതെന്ന് പറഞ്ഞാൽ ഹൊണ്ടേൻ്റെ ഷൈൻ ഉണ്ട് ഹീറോ വണ്ടി ഗ്ലാമറുണ്ട് ഇങ്ങനെ ഉള്ള കുറച്ചു വണ്ടിയെല്ലാം യൂസ് ചെയ്യുന്നു ബൈക്ക് യാത്രകൾക്ക് സൗകര്യപ്രദമായ ബൈക്ക് എതൊക്കെയാണ് ചോദിക്കുന്നെങ്കിൽ അത് സത്യത്തിൽ ഒരു മണ്ടത്തരം ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞാൽ യാത്രകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ബൈക്ക് തന്നെ ഉള്ളത് അതിപ്പം ലോ ബഡ്ജറ്റ് മുതൽ വലിയ എമൗണ്ടിൻ്റെ ബൈക്ക് വരെ യാത്രകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണുള്ളത് ജീവിക്കാൻ ഒരോരാളെ അനുസരിച്ചിട്ടാണ് ഇവരുടെ കംഫേർട്ട് മാറുന്നു ഈ പാഷൻ പ്ലസ് എടുത്തിട്ട് ഇന്ത്യ മൊത്തം സോറി പാഷൻ പ്ലസ് അല്ല ഹീറോ സ്പ്ലെൻഡറെടുത്തിട്ട് ഇന്ത്യ മൊത്തം കറങ്ങിയ ആളുണ്ട് അതേപോലെ നമ്മളെ നാട്ടിൽ തന്നെ ഒരു നാട്ടുകാരിയുണ്ട് അവരും റൈഡ് ചെയ്തെയാണ് ഒറ്റക്ക് ഇന്ത്യ മൊത്തം കറങ്ങിയിട്ട് വന്നായാണ് പിന്നെ അവർ കന്യാകുമാരീ ടു കാശ്മീർ എന്ന് പറയുന്ന പോലെ ഇതേ പോലെ ഇപ്പം ഒരുപാട് പേരുണ്ട് ഇതേ പോലെ അപ്പം അവരവർക്ക് കംഫർട്ടായ വണ്ടിയാണ് ചിലപ്പം വലിയ വില കൂടിയ വണ്ടി എല്ലാവർക്കും കംഫോട്ടാകണമെന്നില്ല ഓടിക്കാൻ അവർക്ക് അനുയോജ്യമാകണമെന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം യാത്ര ഏത് വണ്ടി എന്നുള്ളതിനേക്കാളും കൂടുതൽ യാത്ര ചെയ്യാൻ നമുക്ക് ഏതാണ് സൗകര്യം അത് എടുത്തു കൊണ്ട് പോവാമെന്ന് ബജാജിൻ്റെ പൾസറ് അതേപോലെ ബജാജിൻ്റെ അവഞ്ചറ് പ്ലാറ്റിന ഡിസ്ക്കർ എല്ലാ വണ്ടിയും അതേപോലെ പഴയ എസ്ബി ജാവ ജാദൂത്ത് ചേതക്ക് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് വണ്ടി ഓടിക്കാനുള്ള കളക്റ്റ് ചെയ്യാനും അതുപോലെ അത് നികത്താൻ പറ്റിയില്ലെങ്കിലും ചെയ്യാനുള്ള കുറച്ച് ഇതെല്ലാം കിട്ടിയിട്ടുണ്ട് പിന്നെ എന്താണ് ഏതൊരാൾക്കും ഉണ്ടാവും ഇപ്പം ഒരു വണ്ടി ഒരു പ്രായമെത്തുമ്പോൾ ബൈക്ക് വാങ്ങണം അതുകഴിഞ്ഞിട്ട് വേറെ വണ്ടി വാങ്ങണം ആദ്യം ബൈക്ക് പഠിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫേവറേറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ വണ്ടിയാണ് ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് സിഡി ഹൺഡ്രഡ് എസ്എസ് ആണ് ഹീറോ ഹോണ്ടേൻ്റെ അതിലാണ് ഏറ്റവും കൂടുതൽ യാത്രകൾ പോയതും ചെയ്തതുമെല്ലാം ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് അത്രയും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു വണ്ടിയാണ് അതേപോലെ ഉള്ളത് വേറെ എസ്റ്റി എസ്റ്റി എന്ന് പറയുന്നത് പഴയ വണ്ടിയാണ് ടുസ്റ്റോക്കിന്നിൻ്റെ അതും ഭയങ്കര ഫേവറേറ്റായിട്ടുള്ള വണ്ടിയാണ് പിന്നെ ഈ വണ്ടികൾ അറിയാമല്ലോ അപ്പം കാലത്തിന് അനുസരിച്ച് മാറുന്നതാണ് ഇന്നുള്ള വണ്ടിയല്ല നാളെ ഉള്ളത് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് എല്ലാത്തിനും അപ്ഡേഷൻ വന്ന് കഴിഞ്ഞു പുതിയ വണ്ടിയിൽ എനിക്ക് വലിയ താൽപര്യം ഇല്ല നമ്മളെ തന്നെ കുറച്ച് പഴയ വണ്ടിയെ നമ്മൾ എൻറ്റയിലുണ്ടായ വേറെ ഒരു വണ്ടി ആണ് പറയുന്നത് ബജാജിൻ്റെ ചേതക്കാണ് ചേതക് അത് ഭയങ്കര ഇഷ്ടപെട്ടഒരു വണ്ടിയായിരുന്നു ചേതക് പിന്നെ കുറച്ച് വണ്ടികളെല്ലാം ഉണ്ട് പ്രിയ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി അല്ല ഒരുപാട് വണ്ടിയുണ്ട് ഈ പറഞ്ഞത് പോലെ ഒരുപാട് വണ്ടി ആണ് സ്വപ്ന ബൈക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നുമില്ല സ്വപ്ന ബൈക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെത്തൊരു ബൈക്കൊന്നുമില്ല അതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ സാഹചര്യം പരിമിതിക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ സ്വപ്ന ബൈക്ക് അങ്ങനെ ഒന്നുമില്ല എല്ലാ വണ്ടിയും ഇഷ്ടമാണ് ബൈക്ക് യാത്രക്ക് സൗകര്യപ്രദമായി എന്ന് പറഞ്ഞാൽ അത് ഒരോരാളെ ഹൈറ്റ് ഒരോരാളെ വെയ്റ്റ് അതേപോലെ അവരെ ഒരു കംഫർട്ട് കംഫർട്ടെന്ന് പറയുമ്പം ഓടിക്കാൻ കിട്ടുന്നൊരു സുഖം അതെല്ലാം വച്ച് നോക്കിയിട്ടാണ് സൗകര്യപ്രദം എന്ന് പറയുന്നത് യാത്ര പോവുന്നത് തന്നെ പറയുന്നത് ഒരു സൗകര്യം ആണ് നമ്മൾ ആ ഒരു സൗകര്യം പ്രദമുള്ള നമ്മൾ ഇപ്പം ഏറ്റവും കൂടുതൽ പോയതെന്ന് പറഞ്ഞാൽ അവഞ്ചറെടുത്തിട്ടാണ് പോയത് എൻ്റെലുള്ളേല് അവഞ്ചറെടുത്തിട്ട് നമ്മൾ പോകാത്ത സ്ഥലങ്ങളില്ല കാരണം ട്രിപ്പും ഒരുപാട് ഒരു ഏഴോ എട്ടോ പന്ത്രണ്ട് വണ്ടികൾ അടക്കം നമ്മൾ എടുത്തിട്ട് പോയിട്ടുണ്ട് പന്ത്രണ്ട് ബൈക്ക് പന്ത്രണ്ടും പന്ത്രണ്ട് ടൈപ്പാണ് ഒന്ന് എംസെറ്റാണ് ഒന്ന് ഇതാണ് അവഞ്ചറാണ് ഒന്ന് എൻഎസ് ആണ് പിന്നെ അതിന് അകത്ത് ആക്ടീവ ഉണ്ട് അതിനകത്ത് മാസ്ട്രോ ഉണ്ട് അതിനകത്ത് പിന്നെ എഫ് സെണ്ടുണ്ട് പുതിയ മോഡലും പഴയ മോഡലും ഉണ്ട് ഇങ്ങനെ പന്ത്രണ്ട് ടൈപ്പുള്ള പന്ത്രണ്ട് വണ്ടിയെടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ പോകാത്ത സ്ഥലങ്ങളില്ല നമ്മളെ ആ ഒരു ഡെസ്റ്റിനേഷൻ അറിയാമല്ലോ ഇവിടെ നിന്ന് അത്രയേ ഉള്ളു ഒരു ഇരുന്നൂറോ മുന്നൂറോ കിലോമീറ്ററ്

ഒരു യാത്രയോടുള്ള ഒരു ഇതാണ് അതിനിടയിൽ ഈ സ്വപ്ന വണ്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നുമില്ല എല്ലാവരും മാറി മാറി ഓടിക്കും ചിലയാൾക്ക് കംഫർട്ട് തോന്നുന്ന വണ്ടി അതുമാത്രം യൂസ് ചെയ്യും അങ്ങനെ അല്ലാന്ന് പിന്നെ പറയുക ആണെങ്കിൽ നിഞ്ചാ വലിയ വലിയ വണ്ടിയെല്ലാം പറയാം പിന്നെ എനിക്ക് സ്വപ്ന വണ്ടി എന്ന് പറയുന്നത് നമ്മളെ പഴയ ടു സ്റ്റോക്ക് വണ്ടികളാണ് അധികവും താൽപ്പര്യം അതായത് ചേതക് എസ്ബി ജാവ അതേപോലെ രാജദൂത് ഇത് അല്ലാതെ എനിക്ക് താൽപ്പര്യമുള്ള പിന്നെ ഇതിൻ്റെ ഒപ്പരം തന്നെ വരുന്ന ഒരു വണ്ടിയാണ് എംഐടി ഇതാരും അധികം പറയാറില്ല ഇതെല്ലാമാണ് താൽപ്പര്യം സ്റ്റാർട്ടാക്കിയിട്ട് ആകുമ്പോൾ ഉള്ള സൈലൻസറിൻ്റെ ആ ബിഗ് സൗണ്ട് ആ ബീറ്റെന്ന് പറഞ്ഞാൽ അങ്ങനെ ആണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കാരണം എൻ്റെ ഇപ്പോഴത്തെ സ്വപ്ന വണ്ടി എന്ന് പറയുന്നത് പഴയ എസ്ടിയാണ് അതിൻ്റെ ആ ബീറ്റ് സൗണ്ടും അതൊന്നും ഇനി വരുന്ന വണ്ടിക്ക് കിട്ടില്ല അത് എത്ര പുതിയ വണ്ടി വന്നു എന്ന് പറഞ്ഞാലും പുതിയ ജാവ വന്നു എന്ന് പറഞ്ഞാലും പുതിയ എസ്ഡി വന്നു എന്ന് പറഞ്ഞാലും ആ ഒരു ഫീലിങ്ങ്സ് കിട്ടില്ല അതാണ് ബൈക്കിനോട് പ്രിയമാണെന്നും കാരണം ബൈക്ക് അനുസരിച്ചിട്ട് നമുക്ക് അത് പോലെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനോട് പ്രിയം വരും അങ്ങനെയാണ് സൗകര്യം എല്ലാ വണ്ടിയും ഓടിക്കാൻ സൗകര്യമാണ് കാരണം താൽപ്പര്യമാണ് അതുകൊണ്ട് വണ്ടിയെല്ലാം ഓടിക്കും